ഇപ്പോൾ നമുക്ക് നൃത്തം ഹോബിയായിട്ട് തുടരുന്ന സ്ത്രീകളെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒന്നാണ് കാരണം എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ വീട്ടില് അടങ്ങിയൊതുങ്ങി കഴിയുന്ന വ്യക്തികളാണ് അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും നല്ല രീതിയിലൊരു കലയും കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്നത് എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കാരണം അവർക്കെന്നു പറഞ്ഞുകഴിഞ്ഞാല് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ മാനസികമായിട്ടും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് റെഡി ആക്കി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ സ്ത്രീകൾ പൊതുവെ നമ്മളെ നമ്മളെ ഇവിടുന്നെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലൊന്നും അങ്ങനെ കേറാത്ത കേറാനൊന്നും അങ്ങനെ പറ്റില്ല പിന്നെ അവർക്കായിട്ടുള്ള നിസ്കാരമുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു സമൂഹത്തിൽ നല്ലൊരു വിലയുണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ